ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെയന്നെങ്കിൽ കറവയുള്ള പശുവാണെങ്കിൽ നമുക്ക് അതിനെ അതിൻ്റെ അകിടു കഴുകി ചാണകം എല്ലാം വാരിമാറ്റി പാത്രം വച്ചു നമുക്ക് രാവിലത്തെ നേരത്തെ പാല് കറക്കാം പാല്കറവയ്ക്കു ശേഷമാണ് നമ്മൾ അതിനെ ഒരു അതിനെ രാവിലത്തെ ആഹരമായി ഓക്കെയും പിണ്ണാക്കും ഓക്കെ പിണ്ണാക്ക് പൊടി ഈ പൊടി എല്ലാം കൂടിക്കൂട്ടി കൊടുക്കും അതു കഴിയുമ്പത്തേക്കു പാല് കൊടുത്തിട്ടു വരുന്ന ആൾ അയാൾ തന്നെ മിൽമയിൽ കൊണ്ടുപോയി പാല് കൊടുത്തതിനു ശേഷം വീട്ടിൽ വന്നത് കഴിഞ്ഞ് ആ പശുവിനെ കുളിപ്പിച്ച് പശുത്തൊഴുത്ത് ക്ലീൻ ചെയ്ത് ചെയ്യണം തൊഴുത്ത് ക്ലീൻ ചെയ്തു വരുമ്പോഴത്തേക്ക് ഈ രോഗങ്ങള് എന്തേലും രോഗങ്ങൾ വരുന്നതിന് പ്രതികൂലിക്കാൻ വേണ്ടിയാണ് നമ്മള് എന്തുവാ കൂടുകൾ കഴുകുന്നത് അതുപോലെ തന്നെ കന്നുകാലിയിനെ കുളിപ്പിച്ച് കുളിപ്പിച്ചതിനു ശേഷം ആഹാരം കൊടുക്കുന്നു പുല്ല് വൈക്കോല് പിന്നെ കപ്പത്തണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നു ഈ ഈ മൂന്ന് സാധനങ്ങളും ഇതാണ് രാവിലത്തെ ഒരു നേരമെന്നു പറയാം പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കു വെള്ളം ഇത്തവണ മനുഷ്യനെപ്പോലെ അതുങ്ങൾക്കും ദാഹം ഉള്ളതുകൊണ്ടുമാത്രം ദാഹം ഉള്ളതുകൊണ്ട് അതുങ്ങൾക്ക് കാടിവെള്ളം കൊടുക്കുന്നു ഈ കാടിവെള്ളത്തിൽ ചിലപ്പോള് പൊടി പൊടിതന്നെ കലക്കിയായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് അതാണ് അവരുടെ പാലുല്പാദനത്തില് മെയിനായിട്ട് ഉള്ള കാര്യങ്ങൾ അതുപോലെ വൈകുന്നേര സമയങ്ങളാവുമ്പോഴത്തേക്കും പശുവിൻ്റെ അതുപോലെ തന്നെ ഈ വൈക്കോല് പുല്ല് ഇല്ലെങ്കിൽ തന്നെ ഈ പരിപാലിക്കുന്ന ആൾ പോയി അതിനു വേണ്ട സാധനങ്ങൾ പറിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നു ഒരുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ രാവിലെയും വൈകിട്ടുമാണ് പാൽ കറന്നെടുക്കുന്നത് വൈകുന്നേരം നാലുമണി മൂന്നു മണി സമയങ്ങളിലായിരിക്കും പാൽ കറക്കുന്നത് ഈ പാൽക്കറവയ്ക്കു ശേഷമാണ് എല്ലായ്പ്പോഴും പൊടിയും ഓക്കയും കുഴച്ചു കൊടുക്കുന്നത് ഉച്ച സമയം വൈകുന്നേര സമയങ്ങളിൽ കാടിവെള്ളം കൊടുക്കാൻ കൊടുക്കാറുണ്ട് കാടിവെള്ളം അല്ലെങ്കില് വെള്ളത്തിൽ പൊടിയിട്ടോ വെള്ളത്തിൽ ഓക്കെയിട്ടു കലക്കിയായിരിക്കും കൊടുക്കാറുള്ളത് എല്ലായ്പ്പോഴും തന്നെ ഈ എല്ലായ്പ്പോഴും തൊഴുത്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ടായിരിക്കും ഇരിക്കുന്നത് ക്ലീനായിട്ട് ക്ലീനായതു കൊണ്ട് നമുക്ക് കന്നുകാലികൾക്ക് പ്രത്യേക രോഗമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസില്ല അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഇത് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നു പറയുന്നത് ഈ കന്നുകാലികളുടെ മെയിനായിട്ട് ഇതുങ്ങൾ എല്ലാ എല്ലാ സമയങ്ങളിലും ചാണകം ഇടുന്നതുകൊണ്ട്ു തന്നെ ഈ ചാണകം വാരുക എന്നതു തന്നെ എനിക്കും മിക്ക് കർഷകരുടയും പ്രധാന പരിപാടി ഈ ചാണകം കൊണ്ടു തന്നെ നമുക്ക് ബാക്കിയുള്ള സസ്യജാലങ്ങൾക്ക് നമുക്ക് പ്രകൃതിയിൽ തന്നെയുള്ള ആ ജൈവവളം നമുക്കു നൽകാൻ സാധിക്കുന്നു ഈ ചാണകം ഏറ്റവും കൂടുതല് സസ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഇതൊക്കെയാണ് ഒരു കന്നുകാലീനെ ഓരോ ദിവസവും ഒരു കർഷകൻ പരിപാലിക്കുന്ന കാര്യങ്ങൾ